ഹലോ കസ്റ്റമർ കെയറല്ലേ ആ നിലവിൽ എൻ്റെ പ്ലാന് അമ്പത്താറ് ദിവസത്തെ പ്ലാനാണ് ഞാൻ ഇപ്പം ചെയ്ത് കൊണ്ടിരിക്കുന്നത് അപ്പം അതിനകത്ത് ആ അതെ അമ്പത്താറ് രൂപയുടെ വൺ ജി ബി ഡാറ്റയും അൺലിമിറ്റഡ് കോളും അമ്പത്താറ് ദിവസത്തേക്ക് നൂറ് എസ് എം എസ്സും ആണ് ഇപ്പം നിലവിൽ അനുവദിക്കുന്നത് അപ്പം ആ പ്ലാനൊന്ന് മാറ്റാൻ വേണ്ടി ഞാനാഗ്രഹിക്കുന്നുണ്ട് എനിക്ക് എൺപത്തി നാല് ദിവസത്തേക്ക് ഉള്ള പ്ലാൻ എടുക്കുകയാണ് എങ്കില് കിട്ടാവുന്ന ലാഭങ്ങൾ എന്തൊക്കെയാണ് എത്ര ജി ബി ഡാറ്റ കിട്ടും എക്സ്ട്രാ ഡാറ്റ വീക്കെൻഡിലുണ്ടോ അതിനെക്കുറിച്ച് ഒന്ന് അറിയണമായിരുന്നു ആ ഓക്കെ മൂന്ന് മാസത്തേക്ക് ഉള്ളത് എൺപത്തി നാല് ദിവസത്തേക്ക് ഉള്ളത് ടു ജി ബി ഡാറ്റ ഡെയിലി ഓക്കേ അൺലിറ്റഡ് കോളും ഓക്കെ ഓക്കെ